മാധ്യമ പ്രവർത്തനം വളരെ ഇൻട്രസ്റ്റിംഗായിട്ട് ഉള്ളതും എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഇന്ന് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ധാർമികത വളരെ കുറവാണ് പണ്ട് എന്ന് പറഞ്ഞാൽ മാധ്യമ പ്രവർത്തകർ അവർ ധാർമികത ആയിരുന്നവരെ അവരെ നയിച്ചിരുന്നത് കാരണം ഏത് കാര്യം ആണെങ്കിൽ അവർ വിശദമായിട്ട് പഠിച്ച് അത് അതിനെപ്പറ്റി പഠിച്ചത് അതിൻ്റെ ആധികാരികമായിട്ട് പഠിച്ച് ആണവർ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇന്ന് ഇപ്പം മാധ്യമപ്രവർത്തനം എന്ന് പറയുന്ന അവർ അറിയുന്ന കാര്യങ്ങൾ അതേപടി അവർ അതിനെപ്പറ്റി വിശദമായിട്ട് പഠിക്ക പോലും ചെയ്യാതെ അല്ലെങ്കിൽ എന്താണ് സംഭവം എന്ന് ആ നിജസ്ഥിതി മനസ്സിലാക്കാതെ വാർത്ത കൊടുക്കുകയാണ് അതിൻ്റെ ധാർമികത വളരെ നഷ്ടപ്പെട്ട് പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രദേശത്തെ മെച്ചപ്പെട്ട ഒരു തൊഴിൽ തന്നെയാണ് മാധ്യമപ്രവർത്തനം എന്നുള്ളത് ഓരോ വ്യക്തി ഒരു സമൂഹത്തിൻ്റെ അല്ലേ ഒരു വ്യക്തിയുടെയോ കാര്യത്തിൽ ആണെങ്കിലും ആ കാര്യങ്ങൾ എല്ലാം ഭംഗിയായിട്ട് അല്ലാ അത് മനസ്സിലാക്കി അത് വേണ്ട രീതിയിൽ വാർത്ത അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം ചെയ്യാൻ വേണ്ട ധാർമികത എല്ലാ മാധ്യമ പ്രവർത്തകർക്കുണ്ട് അതിന് പല കഷ്ടപ്പാടുകളും ഉണ്ട് ചില ശരിയായ വാർത്ത കൊടുക്കുമ്പോൾ അതിന് വരുന്ന ഭവിഷ്യത്തുകൾ ഒക്കെ ചിലപ്പോൾ നേരിടേണ്ടി വരും അതുകൊണ്ടാണ് പലരും മറ്റ് വാർത്തയുടെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാതെ അവർക്ക് മാധ്യമപ്രവർത്തനം നടത്തുന്നവർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിലുള്ള വാർത്തകളാണ് പലരും ഇന്ന് കൊടുക്കുന്നത് പക്ഷേ അത് നമ്മൾക്ക് നമുക്കും നമ്മുടെ നാടിനും അല്ലെ നമ്മുടെ സമൂഹത്തിനും അത് ശരിയായ ഒരു നടപടിയല്ല എന്ത് റിസ്ക്കെടുത്തും ശരിയായ വാർത്ത കൊടുക്കുവാനും ആ വാർത്ത അത് ജനങ്ങളിൽ എത്തിക്കുവാനും ഉള്ള ഒരു ധാർമികത എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഉണ്ട് ശരിയായ രീതിയിൽ അവർ പ്രവർത്തിക്കുവാണെങ്കിൽ നല്ല ഒരു എന്താ പറയുന്നത് നല്ലൊരു തൊഴിലാണ് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് കാരണം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ അല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇത്രേ അവരോട് അടുത്ത് അവരുമായിട്ട് ഇടപഴുകി കാര്യങ്ങൾ അറിയാൻ പറ്റിയൊരു തൊഴിൽ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തനമാണ് ഏത് കാര്യങ്ങളെപ്പറ്റിയും വിശദമായിട്ട് പഠിച്ച് അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടായാൽ അതിൻ്റെ നിജസ്ഥിതി എന്താന്ന് മനസ്സിലാക്കി അതിൻ്റെ അതിൻ്റെ സത്യവത്തും ചോർന്ന് പോകാതെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെ ധർമ്മമാണ് അത് ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ പല ഭീഷണികളും അല്ലെങ്കിൽ അതുപോലെ പല ബുദ്ധിമുട്ടുകൾ ഒക്കെ നേരിടേണ്ടി വന്നേക്കാം എന്നാൽ പോലും അതെല്ലാം അതെല്ലാം ഏറ്റെടുക്കാൻ തയ്യാറായി കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദം അല്ലെങ്കിൽ നാടിനെ നന്മയ്ക്ക് വേണ്ടി വാർത്തകൾ കൊടുക്കേം ധാർമികത നഷ്ടപ്പെടാതെ തന്നെ വാർത്ത കൊടുക്കുവാനായിട്ട് ഓരോ മാധ്യമ പ്രവർത്തനം പ്രവർത്തകർ അവർ വേണ്ട രീതിയിൽ അവർ അതിന് വേണ്ടി പരിശ്രമിക്കണം അപ്പം നല്ല ഒരു തൊഴിലായി മാറും മാറുന്നു എന്ന് പറയാൻ കാരനാം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ സമൂഹത്തിൽ എങ്ങോട്ട് തിരിഞ്ഞാലും വാർത്തകൾ മാത്രമേ ഉള്ളൂ അപ്പം വാർത്തകൾ സത്യസന്ധമായിട്ട് കൊടുക്കാൻ എന്നുള്ളതാണ് അതിൻറ്റാത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം അപ്പം വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെ ആ ഒരു കർമ്മനിരതരായി അതായത് മാധ്യപ്രവർത്തനം എന്ന നമ്മുടെ കണ്ണും ചെവിയും എല്ലാം സമൂഹത്തിലേക്ക് തുറന്ന് വെച്ച് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യുവാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ ഇതൊരു നല്ല തൊഴിലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു